ഞങ്ങളുടെ പ്രദേശത്ത് വ്യത്യസ്തമായ മതങ്ങളും സമുദായങ്ങളിലും പെട്ട ആള്ക്കാര് ജീവിക്കുന്നുണ്ട് അവിടെയുള്ള പല മത വിഷയങ്ങളും അല്ലെങ്കില് ആ പ്രദേശത്ത് ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം വളരെയേറെ സെന്സിറ്റിയോടു തന്നെയാണ് വാര്ത്താ മാധ്യമങ്ങള് കൈകാര്യം ചെയ്യുന്നത് കാരണം വാര്ത്താ മാധ്യമങ്ങളിലൂടെ ഏതെങ്കിലൊരു മതത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലൊരു സമുദായത്തെയോ ഏതെങ്കിലും ഒരു രീതിയിൽ മുറിവേല്ക്കുന്ന തരത്തിലുള്ള വാര്ത്തകൾ വന്നാൽ അത് അവര്ക്കറിയാം അതു തീര്ച്ചയായും അത് ആ സമുദായത്തിന്റെയോ അല്ലെങ്കില് ആ മതത്തിന്റെയോ വിദ്വേഷത്തിനു കാരണമാകും അതിനുള്ളിൽ സ്പര്ദ്ധ വളരും ആ സ്പര്ദ്ധ പലവിധ കലുഷിത പ്രവര്ത്തനങ്ങള്ക്കും കാരണമാകും അപ്പോള് ഒരിക്കലും ഉണ്ടാകരുത് ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല അപ്പോൾ മാധ്യമങ്ങള് അതിന്റേതായ അതിന്റേതായ രീതിയില് കൈകാര്യം ചെയ്യുന്നത് കൊണ്ടു തന്നെയാണ് കാരണം മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങൾ ഈ ഒരു ജാതിയില് പെട്ടതോ മതത്തിൽ പെട്ട് മതത്തില് പെട്ടവരോ അല്ലെങ്കിലൊരു സമുദായത്തില് പെട്ടവരോ മാത്രം കാണുന്നതോ കേൾക്കുന്നതോ ആയ കാര്യമല്ല അത് എല്ലാ നാനാ തരത്തിലുള്ള ജാതി മതസ്ഥരും സമുദായക്കാരും ഈ മാധ്യമങ്ങള് കൈകാര്യം ചെയ്യുന്നവരാണ് ഉപയോഗിക്കുന്നവരാണ് അപ്പോള് അതിലൂടെ എന്തെങ്കിലും തെറ്റായ രീതിയിലോ മറ്റും എന്തെങ്കിലും ഒരു വാര്ത്ത പ്രചരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ ആ പ്രദേശത്തെ മുഴുവൻ അതു ബാധിക്കും ആ പ്രദേശത്തെ ബാധിച്ചു കഴിഞ്ഞാൽ അതു ചിലപ്പോഴത് വളര്ന്ന് നാടിനെ മൊത്തം മൊക്കം ബാധിക്കും ആ നാടിനെ മുഴുവന് ബാധിച്ചത് ആ ചിലപ്പോൾ ഒരു പക്ഷെ ആ സംസ്ഥാനത്തെ തന്നെ ബാധിച്ചുവെന്ന അവസ്ഥയിലേക്ക് എത്തിക എത്താം അതുകൊണ്ടൊരിക്കലും ഇങ്ങനെയുള്ള വാര്ത്തകള് ഒരു പ്രത്യേകിച്ചൊരു മതത്തെയോ സമുദായത്തെയോ സംബന്ധിക്കുന്ന തരത്തിലുള്ള ഒരു വാര്ത്തകളും ഇന്നുവരെ മാധ്യമങ്ങള് തെറ്റായ രീതിയിലങ്ങനെ പ്രചരിപ്പിച്ചിട്ടില്ല പ്രചരിപ്പിക്കുകയുമില്ല എന്നു തന്നെയാണ് എന്റെ അഭിപ്രായം പിന്നെ എപ്പോഴെങ്കിലും യാദൃശ്ചിക വശാല് എന്തെങ്കിലും അത്ഭുതങ്ങള് സംഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളതല്ലാതെ വേറെ തെറ്റായ രീതിയിലോ അല്ലെങ്കിൽ വളരെ സെൻസിറ്റോടി സെന്സിറ്റീവായിട്ടു തന്നെയാണ് വാര്ത്താ മാധ്യമങ്ങള് വാര്ത്തകള് പ്രചരിപ്പിക്കുന്നത്